ഇപ്പോൾ നമ്മള് സ്കൂളുകളിലൊക്കെന്നക്കെ പറഞ്ഞ് കഴിഞ്ഞാല് പല രീതിലുള്ള ക്ലാസും കാര്യങ്ങളൊക്കെ നമ്മള് അറ്റന്റ് ചെയ്യുന്നവരാണ് അപ്പോൾ അവര് നല്ല രീതിലുള്ള പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്കൂളുകളിൽ തന്നെ നമുക്ക് ഡ്രോയിങ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് സ്കൂളുകളിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു നമ്മളത് വച്ചിട്ടാണ് നല്ല രീതിയിലുള്ള ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ പഠിച്ചതും നല്ല രീതിയിൽ വരയ്ക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളതും അപ്പോൾ നമക്കത് നല്ല രീതില് ചെയ്യാൻ വേണ്ടീട്ട് സാധിക്കുന്ന ഒന്നാണ് കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാൽ നമ്മള് സ്കൂളുകളിൽ നിന്നൊക്കെ വരച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മള് കോളേജുകളിലോക്കെ നല്ല രീതിലുള്ളൊരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളു അപ്പം പിന്നെ നമ്മള് പുറത്ത് നിന്നക്കെ ചിത്രരചനയൊക്കെ പഠിച്ച് ഇഷ്ടംപോലെ കുട്ടികളും കാര്യങ്ങളൊക്കേണ്ട് അപ്പം അവരക്കേ നല്ല രീതില് നല്ല നിലയിലൊക്കെ എത്തിയിട്ടുണ്ടാകും ഇപ്പോൾ ഒരു ഡിസൈനേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മക്ക് വർക്ക് ചെയ്യാവുന്ന ഒന്നാണ് അപ്പോൾ നല്ല രീതില് അത് ചെയ്യാൻ വേണ്ടീട്ട് സാധിക്കുന്ന ഒന്നാണ് ഇപ്പോൾ പലരീതിലുള്ള കോഴ്സ്കള് നമുക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കുക തന്നെയാണ് ഇപ്പോൾ ചിത്രരചനയിൽ പറ്റിയിട്ട് തന്നെ നല്ല രീതിയിലുള്ള കോഴ്സ്കളും കാര്യങ്ങളൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും